വയനാട് വന്യജീവി സങ്കേതം വളരെ പ്രശസ്തമാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ഒക്കെ ഭയങ്കര പ്രശസ്തമാണ് ഇപ്പം പരിസ്ഥിതിയെ വളരെ നല്ലോണം കൈകാര്യം ചെയ്യണം എന്നാണ് നമ്മൾ എൻ്റെ അഭിപ്രായം അപ്പോൾ മരങ്ങൾ കുറേ നട്ടുപിടിപ്പിക്കുക അതിനായിട്ടുള്ള കാര്യം മരത്തിൻ്റെ മരം മുറിക്കുമ്പോൾ ആ മരത്തിൻ്റെ താഴത്തന്നെ വേറൊരു മരത്തൈ കൊണ്ടു നടുക പിന്നെ ഓരോ മരം വച്ചു പിടിപ്പിക്കുക പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് നല്ല തന്നെ വരാൻ പറ്റും നല്ല തന്നെയാണ് വരാനുള്ളൂ അതുകൊണ്ട് പ്രകൃതി നന്നായി സംരക്ഷിക്കുക പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങൾ ഒന്നും ഈ പ്രകൃതിയിലോട്ട് ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയരുത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെയ്യാനുള്ളത് പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യാതിരിക്കുക വിഭവങ്ങൾ നഷ്ടമാകും നമുക്ക് പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ക്രൂരമായി നമ്മൾ പ്രകൃതിയെ ശിക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വച്ചാൽ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് നഷ്ടമാകാതെ ആയിട്ട് വരും പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരൊക്കെ ഒക്കെ നല്ല പരിശീലനമൊക്കെ ഉണ്ട് വയനാട് വന്യജീവി സങ്കേതത്തിന് നല്ല സംരക്ഷണം ഒക്കെയാണ് പിന്നേ ചില കാര്യങ്ങളിൽ മോശം പറയണതൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്